നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലെ തന്നെ വളരെയധികം നല്ലതായിരിക്കും നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം കോമ്പറ്റീഷൻ ഉള്ളത് ഇന്ത്യൻ മാധ്യമ രംഗത്താണ് വളരെയധികം പാർട്ടിക്കാരുടെയും മറ്റ് അധികം പണക്കാരുടെ ഇൻഫ്ലുവൻസിൽ ഇപ്പോൾ നമ്മുടെ മാധ്യമം വളരെയധികം താഴോട്ടു പോയിരിക്കുന്നു ആരു വേണമെങ്കിലും ഇന്ന് ന്യൂസ് വേണമെങ്കിലും പറയാതിരിക്കാം വരിത്തിക്കാതിരിക്കാം അതൊന്നും ചോദിക്കാനായി ഒരു ഒരു സിസ്റ്റം കൂടെയില്ല കുറച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സ്പോർട്സ് രംഗത്തെ വാർത്തകൾ അതുപോലെതന്നെ ഇലക്ഷൻ ആകുമ്പോൾ ചില പാർട്ടിക്കാരുടെ കാര്യങ്ങളിൽ എടുത്തുപറയുകയും മറ്റു പാർട്ടിക്കാർ ചെയ്യുന്ന നന്മകളെല്ലാം അടിച്ചമർത്തുകയും ചെയ്യുന്നതാണ് നമ്മുടെ മാധ്യമം മാധ്യമങ്ങളിൽ പ്രശസ്തമായ കുറെയധികം ആൾക്കാർ പല അധികം ജോലികൾ ചെയ്യുകയും അതിൽനിന്ന് പിടിക്കപെടുമ്പോഴും വളരെ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതൊന്നും വാർത്തയിൽ വരുന്നില്ല അതെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ് മലയാളം മാധ്യമം എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു മാധ്യമമായിരുന്നു പണ്ടുകാലത്ത് കുറെയധികം മൈനോറിറ്റി വിഭാഗമുള്ള ആൾക്കാരുടെ വിഷമങ്ങളും ബാക്കി കാര്യങ്ങളും ഉന്നത ആൾക്കാരെ അറിയിക്കുകയും അവർക്ക് പരിഹാരങ്ങൾ വാങ്ങി കൊടുക്കാനും മാധ്യമങ്ങൾക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട് പിൻകാലത്ത് എന്നാൽ ഇന്ന് അംഗീകാരങ്ങൾ കിട്ടാത്തവരെ അടിച്ചമർത്തുകയും ചോദ്യം ചെയ്യുന്നവരെ വിരൽ ഒടിക്കുകയും എന്നപോലത്തെ കാര്യങ്ങളാണ് മാധ്യമങ്ങൾ പറയുന്നത് അത് വളരെയധികം തെറ്റായ ഒരു സംഭവമാണ് ആരും പിന്നെ ഇക്കാലം ഇക്കാലം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് ചാനലിലോ വളരെയധികം പരസ്യങ്ങൾ ഇടകയാണ് ന്യൂസിനെക്കാൾ കൂടുതൽ പരസ്യങ്ങൾക്കാണ് അവര് മ മൂല്യം കൊടുക്കുന്നത് ന്യൂസ് ചാനലിൽ ഒരു ചെറിയ ടോപ്പിക്ക് തന്നെ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി വലിച്ചു നീട്ടിയത് അത് പ്രൈം ടൈം ആക്കുകയും നാലഞ്ചു ദിവസം ഓടിപ്പിക്കുകയും ചെയ്യുന്നതാണ് കാണാനുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വളരെയധികം വാർത്ത മൂല്യമില്ലാതെ എന്നാൽ വളരെയധികം കഠിനമായ കാര്യങ്ങൾ അവർ മറച്ചുവെക്കുന്നു മിക്കതും ഈ പൊളിറ്റിക്സ് അഥവാ പോളി പോളിറ്റിക്കൽ പാർട്ടി മ പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുകയും അവർ ചെയ്യുന്ന നന്മകൾ പറയുകയും ചെയ്യുന്നു ഇന്ന് കേരളത്തിൽ വളരെയധികം പൊളിറ്റിക്ക് പാർട്ടികൾക്ക് വളരെയധികം മാധ്യമങ്ങളുണ്ട് ഒരു നാലോ അഞ്ചോ പൊളിറ്റിക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അതേതായ മാധ്യമങ്ങൾ ഉണ്ട് അതിൽ അവർ അവരുടെ ഓപ്പോസിറ്റ് ആൾക്കാരെ വളരെയധികം കുറ്റം പറയുകയും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം നന്മ വെച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഇതൊന്നും അത്ര നല്ല കാര്യമല്ല ന്യൂസ് നമുക്ക് വാർത്തകൾ നമുക്ക് നമുക്ക് പൈസ കൊടുത്ത് അടിച്ചമർത്താനും പൈസ കൊടുത്തു കൊടുക്കാനും പറ്റുന്ന ഒരു സമ്പ്രദായം വരെ വന്നിരിക്കുന്നു കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ മാധ്യമങ്ങൾ ആകെ നോക്കുന്നത് സെലിബ്രേറ്റി ന്യൂസുകളാണ് പണമുള്ളവർ എന്ത് ചെയ്യുന്നു പണമുള്ളവർ എ മാത്രം നോക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് എന്നാൽ അവിടത്തെ ചെറിയ പൈസക്കാര് അല്ലാത്തവരുടെയും സാധാരണ ജനങ്ങളുടെയും വിഷമങ്ങൾ പറയാൻ പറയാനും അത് പ്രസിദ്ധീകരിക്കാനും അവർക്ക് സമയമില്ല ന്യൂസ് വാല്യൂ എന്നൊരു സംഭവം വന്നതോടുകൂടിയാണ് മാധ്യമങ്ങളുടെ മൂല്യം പോയത് ആളുകൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള വാർത്തകൾ മാത്രം പ്രസിദ്ധീകരിക്കുകയും ബാക്കിയുള്ള വാർത്തകൾ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് അത് അങ്ങനെ വന്നത് മൂലം തന്നെ ഇന്ത്യയിൽ പലയധികം ചെറു ചെറിയ കാര്യങ്ങൾ പൊന്തി വരികയും വലിയ വലിയ കാര്യങ്ങൾ ചെറുതാകുകയും ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ന്യൂസ് കോളത്തിന്റെ ഉള്ളിൽ ആണ് ഒളിമ്പിക്സിൽ മെഡൽ വാങ്ങിയ ആൾ പോലീസിന്റെ തല്ല് കിട്ടി ആശുപത്രിയിലായിരുന്നു എന്ന് പ്രസിദ്ധിക്കരിച്ചു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നം ഇന്ത്യയിൽ നേരിടുന്നത് സ്പോർട്സ് എന്ന കോളം ഏതൊരു മാധ്യമത്തിൻ്റെയും ഏതൊരു പേപ്പറിൻ്റെയും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം റിസർച്ച് അവർ അതിൽ ചെയ്യുന്നുണ്ടെന്ന് സ്കോറുമാത്രം നോക്കിയത് പ്രസിദ്ധീകരിക്കുന്ന ഒരു സമ്പ്രദായം വരെ കേരളത്തിലുണ്ട് ഇതെല്ലാമാണ് നമ്മള് നമ്മൾക്ക് നോക്കാനായി നോക്കേണ്ടത് കാരണം ഇതെല്ലാം വലിയ വളരെയധികം വലിയൊരു ടോപ്പിക്കുകൾ ആണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത് വളരെയധികം ഇതെല്ലാം നമ്മുടെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ വരും തലമുറകൾ ഇത് വായിച്ച് എന്നാൽ ഇന്ന് ശരിയായ വാർത്തകൾ അവർക്ക് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് വളരെയധികം അവർക്ക് ഇതൊന്നും ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളൊന്നും അറിയാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് ഇന്ന് പാലസ്തീനിൽ യുദ്ധം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വാർത്ത പോലും നമ്മുടെ രാജ്യത്തെ പത്രങ്ങളും മാധ്യമങ്ങളും പറയുന്നില്ല കാരണം അതെല്ലാം ന്യൂസ് വാല്യൂ കുറവായ വാർത്തകൾ അഥവാ പൊളിറ്റിക്കൽ വളരെയധികം പൊളിറ്റിക്കൽ ഇൻഫ്ലുൻസ് ഉള്ള വാർത്തകൾ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഒരു മാറ്റം അനിവാര്യമാണ് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് തന്നെ വേണം അത് ഇപ്പോൾ നല്ലതായാലും ചീത്തയായാലും നമ്മൾ പറയുക തന്നെ വേണം അതിന് ഇപ്പോൾ മറ്റൊരു ഇതിപ്പോൾ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർക്ക് പ്രശ്നമായി ഇവർക്ക് പ്രശ്നമായി എന്ന് പറഞ്ഞിട്ട് വേണ്ടാതെയും ഇരിക്കരുത്